ഹലോ സരസ്വതി ട്രാവെൽസ് അല്ലേ ഞാൻ മിനഞ്ഞാന്ന് ഗുരുവായൂർ പോകാൻ വണ്ടി ഏജൻ്റും ബുക്ക് ചെയ്തതായിരുന്നു അത് ഞങ്ങൾ പൈസ പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടു പോയത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഡ്രൈവർക്ക് ആഹാരവും ഫുഡും കെടക പിന്നെ റൂം വാടകയും ഇത് എല്ലാം കൊടുത്തായിരുന്നു ഞങ്ങൾ കൊണ്ടു പോയത് അവിടുന്ന് വന്ന് ഞങ്ങൾ ആയിരം രൂപയും കൊടുത്തു കൈ അധിക പറ്റ് ആയിരം രൂപയും കൊടുത്തിരുന്നു അവർ ചോദിച്ചാൽ അധിക പറ്റ് അവർ ചോദിച്ച ആയിരം രൂപ അതും കൊടുത്തു അത് എന്തുകൊണ്ടാണ് അത്രയും പൈസ മേടിച്ചത് ഞങ്ങൾ പറഞ്ഞ പൈസ അവർ പറഞ്ഞ പൈസയിൽ അധികപറ്റ് ആയിരം രൂപയും കൂടെ കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾ ഏജൻസിയോട് ഞങ്ങൾ പരാതിപ്പെടാം പെടണോ അതോ എന്തുവാണെന്ന് വച്ചാൽ ഒന്ന് പറയണം ഡ്രൈവറെ നമ്മൾ റൂമെടുത്ത് അതാ താമസിപ്പിച്ച് അവർക്ക് ആഹാരവും കൊടുത്ത് എല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ വിളിച്ച് കൊണ്ട് പോയത് അതുവരെ നമ്മൾ നമ്മുടെ കാര്യം നടത്തി ഈ ആയിരം രൂപ അധിക പറ്റ് മേടിച്ചത് എന്തുകൊണ്ടാണ് അറിയണം അത് എന്തുവാണെന്ന് വച്ചാൽ തിരക്കി പറയണം അത് അത് നേരിട്ട് പറയണം ഇനിയും ഞങ്ങൾക്ക് വിളിക്കേണ്ട അവസരം വരും അത് സരസ്വതി മാം ഇതിന് ഒരു